ആ ഹലോ ബിബിനേ നമുക്ക് എന്താണ് നല്ല ഫുഡ് എവിടുന്ന് കിട്ടും എടാ ബിരിയാണി നല്ലത് എവിടെ ആണെടാ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണോ അതോ നമ്മുടെ മാമ്പഴക്കേരിയിലുണ്ടോ അതോ ആലപ്പുഴയിലാണോ ഏറ്റവും നല്ലത് ഏതാണ് നമ്മുടെ ഇൻഡ്യൻ കോഫി ഹൗസിലെ നല്ലതാണ് ഇന്നലെ ഞാൻ അത് മേടിച്ചിട്ട് നല്ല ഫുഡ് ആയിരുന്നു കഴിച്ചത് പിന്നെ എന്താണ് റേറ്റ് ഒക്കെ എത്രയാണ് കോഴി ബിരിയാണിക്ക് എത്രയാണ് ആ കുഴിമന്തിക്ക് എത്രയാണ് ആ എന്നാൽ നമുക്ക് നല്ലതാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോര് ഒത്തിരി നാളായി

വ എന്താണ് അത് ആ നമുക്ക് എടാ നമുക്ക് ഗസ്റ്റ് ഉണ്ട് അന്ന് അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോരൂ അതപ്പം നമുക്കും കഴിക്കാമല്ലോ നമ്മളും കുറേ നാളായില്ലേ ഇങ്ങനെ ഒക്കെ ഭഷ്ണങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് പുറത്തു നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടേ അപ്പം ന നീ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് മേടിച്ചുകൊണ്ട് പോരണേ മറന്നുപോകല്ല് കേട്ടോ ഏതാണ് കുഴിമന്തിയാണോ നല്ലത് അതോ നമ്മുടെ കോഴി ബിരിയാണി ആണോ നല്ലത് അ കോഴി ബിരിയാണി അ കോഴിക്കൊക്കെ ഇപ്പം പക്ഷിപ്പനിയല്ലേ അപ്പം അതുകൊണ്ട് നീ ബീഫ് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നാലും മതി ആ ഇൻഡ്യൻ കോഫി ഹൗസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാലും മതി അവിടെ റേറ്റും കുറവാണ് കേട്ടോ ഓക്കെ